പത്തൊൻപത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറു ഇരുപത്തെട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി പതിനാറ് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനെട്ട്